ഹലോ നമസ്കാരം ആ ഞാനേയ് നെറ്റിൽ നിങ്ങളുടെ ആഡ് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ ഞാനൊരു ബിസിനസ്സ് നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഹോൾസേലായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് റീസെല്ല് ചെയ്യും അപ്പോൾ നിങ്ങളുടെ തേയിലയെക്കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചുമൊന്ന് പറയാമോ

ആ ആ അപ്പം ആ അപ്പം നിങ്ങളവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണല്ലേ നിങ്ങളുടെ ഓൺ ഫാക്ടറി ആണ് ആ അപ്പോൾ നമുക്ക് പായ്ക് അല്ലല്ല വീട്ടിലാവശ്യത്തിനല്ല ബൾക്കായിട്ടെടുക്കാനാണ് ഞാനിങ്ങനെ ബൾക്കായിട്ടെടുത്തിട്ട് പിന്നെ ചെറിയ ഷോപ്പുകളിൽ കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നു അങ്ങനെയാണ്

ആ അതെ അതെ അപ്പം ലൂസ്സായിട്ട് എടുക്കാനാണെങ്കിൽ താല്പര്യം

ആ ആ ലൂസായിട്ട് മതി ആ അപ്പോൾപ്പിന്നെ

ഇല്ല ഇപ്പോൾ തൽക്കാലം നോർമലായിട്ടുള്ളത് മതിയായിരുന്നു അപ്പോൾ നോർമലിലാണെങ്കിൽ മസാല ടീ ഉണ്ടാക്കാൻ അത് പറ്റത്തില്ലേ ചിലരങ്ങനെ താൽപര്യപ്പെടുന്നവരും ഉണ്ട്

ആ നല്ല റേറ്റിങ്ങ് കണ്ടിരുന്നു ഉം ആ ഓക്കേ ഓക്കേ അതാവും ബെറ്ററ് ആ അപ്പോൾ പിന്നെ ആ അപ്പോൾ എങ്ങനെ ബൾക്കായിട്ടെടുക്കുമ്പോൾ എ നിക്കെന്തെങ്കിലും അല്ലല്ല ഞാൻ വന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് ആ ആ അപ്പോൾ അടുത്ത തവണ എത്താൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ കൊറിയറ് ചെയ്യാൻ പറ്റുമോ ആ

പറ്റില്ല ആ ആ അത് നന്നായി ആ ആ

ആ ഇപ്പോൾ എങ്ങനെയാ ബൾക്കായിട്ടെടുക്കുമ്പോൾ എനിക്കെന്തെങ്കിലും പ്രത്യേകം ഡിസ്ക്കൗണ്ട് അങ്ങനെ വല്ലതും നിങ്ങൾ ഓഫറ് ചെയ്യുന്നുണ്ടോ മാക്സിമം ഉം അ ആ അ ആ ആ ഉം ഉം അ ആ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു എനിക്കിപ്പോൾ ഒരു നൂറ് കിലോ എങ്കിലും വേണ്ടി വരും നൂറ് കിലോയോളം വേണ്ടി വരും ഉം ഉം ഉം ഇപ്പോൾ ഇത്രയും എമൗണ്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിലൊന്ന് ഡിസ്ക്കൗണ്ടിട്ടാല് നന്നായിരുന്നു ഓക്കേ ഓക്കേ അപ്പോൾ ഞാൻ ഒടനെ തന്നെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് വരുന്നതാണ് ആ നോക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ ശരി ശരി താങ്ക് യു